ഞാനേ ഒരു പിന്നെ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയായിരുന്നേ അപ്പോൾ എനിക്കിപ്പോൾ കോയമ്പത്തൂർ വരെ ഒന്ന് പോവാൻ വേണ്ടിയായിരുന്നു

അല്ലെടാ എനിക്കൊരു പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിനക്കറിയുന്ന ഏതെങ്കിലും ക്യാബോ അങ്ങനെ എന്തെങ്കിലും ഊബറോ അല്ല അങ്ങനെയെന്തെങ്കിലും അതായത് ഡ്രൈവറും ഇവരുടെ അതായത് പിന്നെ എന്നാൽ എന്തെങ്കിലും അറിവ് നിനക്കുണ്ടോ ആണോ ഊബറല്ലേ അങ്ങനെയാണെങ്കിൽ നീ എനിക്കൊരു കോയമ്പത്തൂരിലേക്കൊരു ഊബർ ബുക്ക് ചെയ്ത് തരുവോ അത്യാവശ്യം നല്ലതായിരിക്കണം അതായത് ഡ്രൈവറൊക്കെ അടിപൊളിയായിരിക്കണം കാരണം ഞാൻ എൻ്റെ അമ്മമ്മേനേയും അച്ഛച്ചനെയൊക്കെ കൊണ്ടുപോകുന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ലോണമൊന്ന് ഡ്രൈവ് ചെയ്യുന്ന അതായത് സെയ്ഫായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിരിക്കണം ഓവർ സ്പീഡ് കാര്യങ്ങളൊന്നുമില്ലാണ്ട് നിനക്ക് അങ്ങനെ ആരെയെങ്കിലും അറിയുമോ

അതൊന്ന് അതൊന്ന് റെഡിയാക്കിത്തരുവോടാ ഓക്കെ എടാ എന്നാൽ നീയൊന്ന് അത് റെഡിയാക്ക് കേട്ടോ എന്നിട്ടെന്നെയൊന്ന് വിളിക്കണേ ഓക്കെ എടാ